ഹലോ ആ ഹലോ ആ ആ ഇതിപ്പോള് ഞാനെ ആ എനിക്ക് വേണ്ടി നമുക്ക് പിന്നെ ചുരിദാറിൻ്റെ സെറ്റാണ് വേണ്ടേ കോട്ടൻ ആ ആ നമുക്ക് കോട്ടനാണിപ്പോള് ചൂടിൻ്റെ സമയമല്ലേ അപ്പോള് നമുക്കുപയോഗിക്കാന് വേണ്ടിയുള്ള നല്ല സൈസ് ചുരിദാറാണ് നമുക്ക് വേണ്ടേ അതിനും വേണ്ടി

ആ എനിക്കിപ്പോള് സെറ്റായിട്ടും വേണം മുറിച്ചെടുക്കാനുള്ളതായിട്ടും വേണം രണ്ടും കൂടെ കൂട്ടിയാണ് വേണ്ടത് ആ അപ്പോള് നമുക്ക് അതുപോലെതന്നെ ഈ സിൽക്കിൻ്റെ ചുരിദാറൊക്കെയുണ്ടോ നമുക്ക് നല്ലെ സിൽക്കിൻ്റെ ചുരിദാറുണ്ടോ നമുക്കത് മുറിച്ചെടുക്കാനായിട്ടുള്ളും സെറ്റായിട്ടുള്ളതുമുണ്ടോ ആ ആ അപ്പോള് എനിക്കതിൻ്റെ അതിപ്പോള് എത്രയിഞ്ച് വീതി എത്ര വീതി എത്രയാ ഉള്ളെ നിങ്ങടപ്പോള് നിങ്ങളുടെയാ തുണിക്ക്

ആ ത്രീ ഹൺഡ്രഡ് പറ്റുമോ ആ രണ്ട് കൂടുതല് വേണമല്ലേ ആ അപ്പോള് ആ അത് തരാമോ എനിക്ക് രണ്ടര മീറ്റർ വെച്ചി ആ രണ്ടേ മുക്കാൽ വച്ചെടുക്കാം അതുപോലെതന്നെ നമുക്ക് പിന്നെ സിൽക്ക് സാരിയൊക്കെയുണ്ടോ സാരി സാരിയെന്നുവച്ചാൽ കോട്ടൻ ആ സിൽക്കിൻ്റെ സാരി വേണം കോട്ടൻ ആ മ്മ് ആ എനിക്ക് വേണ്ടത് നമുക്കീ ജൂട്ടിൻ്റെതും പ്രിൻ്റഡ് സിൽക്കിൻ്റെ സാരിയാട്ടാ നമുക്ക് വേണ്ടെ അപ്പോള് അതിനുവേണ്ടിയും കൂടെ നോക്കാം അപ്പോള് അതും കൂടൊന്ന് കാണിച്ചു തരണം പിന്നെ നമ്മുടെ ഈ പിന്നെ നൈറ്റിത്തുണിയുണ്ടോ നമുക്ക് ആ സാരിക്കല്ല ആ പറഞ്ഞോ ആ ആ പറ അല്ലെ നൈറ്റ് സാരിയുടെ പറഞ്ഞോ സാരിയുടെ ഏതാ വില എന്നാവരുന്നെ

കുറഞ്ഞുകിട്ടും ആ ആ ആ അപ്പോള് ആ ആ ആ ഉപയോഗിക്കാവുന്നാണ് ആ ആ ആ അപ്പോള് അതുപോലെതന്നെ നമുക്ക് പിന്നാ നല്ല കോട്ടൻ്റെ ബെഡ് ഷീറ്റുണ്ടെന്നു പറഞ്ഞല്ലോ അതെങ്ങനെയാ സിംഗിളിൻ്റെയുണ്ടോ ഫാമിലി കോട്ടോ അങ്ങനെയെന്നാ അങ്ങനെയൊക്കെയുള്ളേ

ആ ഒരു ഇതും വരുമോ ആ ബെഡ് ഷീറ്റായിട്ട് ആ അപ്പോള് ആ നമുക്ക് നല്ല ഈ ഷർട്ടിൻ്റെ തുണികള് ഐറ്റംസുണ്ടോ കോട്ടൻ്റെ ഷർട്ടും ആ അതെങ്ങ് ആ ആ ആ പല മോഡലായിട്ടുള്ള ആ അപ്പോള് നമുക്ക് ആ ആ ആ അപ്പോള് നമുക്കതിൻ്റെ ഹാഫ് കൈ ഹാഫ് ഷർട്ടായിട്ടുള്ളതുണ്ടോ ഹാഫ് ഷർട്ടിനും

ആണല്ലേ അപ്പോള് നമുക്ക് ഡബിൾ മുണ്ടുണ്ടോ ഡബിൾ മുണ്ട്

ആ അത് ആണോ അതുകൊണ്ട് ഒറ്റമുണ്ടുണ്ടോ കുപ്പടത്തിൻ്റെ ഒറ്റമുണ്ടുണ്ടല്ലേ അപ്പോള് അയിൻ്റെ ഒറ്റമുണ്ടും ഉണ്ടല്ലേ അപ്പോള് നമുക്കീ ആ ആ ആ ആ ആ

ഡിസ്കൗണ്ട് വരും ആ അപ്പോള് അതുപോലെ നമുക്ക് നല്ല നാടൻ കോട്ടൻ പഞ്ഞി മെത്തകളുണ്ടോ ആണല്ലേ ആ ആണല്ലേ ആ അതു ശരി കുഷ്യൻ്റെ കവറുണ്ടല്ലേ അത് നല്ല പഞ്ഞിയായിരിക്കും അല്ലേ ആ ആ ആ ആ അപ്പോള് ആ അപ്പോള് ഓക്കെ എന്നാ ശരിയെന്നാ താങ്ക്യൂ കേട്ടോ